കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ശമ്പള മൂലധനങ്ങളുടെ സ ധനസഹായങ്ങൾ അങ്ങനെ കെട്ടിടങ്ങൾ അങ്ങനെ പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകുന്നു വിദ്യാലയങ്ങൾക്ക് ഒക്കെയാണ് നൽകുന്നത് പിന്നെ പ്രവർത്തന ചിലവുകളും അതിൻ്റെ വഴികളൊക്കെ നമ്മൾ ഉത് ഉത്പാദിപ്പി കിട്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഫണ്ടിങ്ങാണ് ഹെലിക്കോൺ ഫണ്ടിങ്ങും അതുപോലെ തന്നെ ഡൊണേഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ വഴിയാണ് വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസങ്ങളിൽ നടക്കുന്നത് പിന്നെ ഗവൺമെൻറ്റ് നൽകുന്ന ആനുകൂല്യങ്ങളും അതുപോലെയാണ് ഇപ്പം അങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ശമ്പളങ്ങളൊക്കെ നമ്മൾ സർക്കാരുടെ വക അങ്ങനെ കൊടുക്കുന്നതാണ് സഹായങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ കുഞ്ഞുമക്കൾക്ക് എസ് ടി അങ്ങനെ കാറ്റഗറി വരുന്ന മക്കൾ സ്കൂളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെയുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നത് എന്നുവെച്ചാൽ എല്ലാ ചിലവുകളും പ്രവർത്തന ചിലവുകളും എല്ലാ മേഖലകളിലും എന്താ പറയുക നമ്മൾ പൊതുകാര്യമായിട്ട് ഒരു എന്തെന്ന് പറയുക ചിൽഡ്രൻസ് എജുക്കേഷൻ്റെ ഭാഗമായിട്ടാണ് കൊണ്ടുവരുന്നത് എല്ലാ രീതിയിലും കേരള വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ ശ്രോതസ്സുകളും ഇതൊക്കെയാണ്